പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇരുവത്തൊൻപത് ഏഴ് ഇരുപത്തി നാല്